ഇപ്പോൾ നമ്മളെ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാ ആദ്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികളൊന്നും ഇല്ലാത്ത ഒരു ലോകമായിരുന്നു കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ വണ്ടികളൊക്കെ കുറവ് ഇപ്പോൾ നമ്മടെ നാട്ടിൽത്തന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാല് വണ്ടികളൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ആയിരുന്നു ആദ്യത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് നമ്മള് അതായത് കളിച്ച് വളർന്ന ഒരു ടൈമിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വണ്ടികള് സൈക്കിളുകള് ഇപ്പോൾ എന്താ പറയുക വലിയ ടയറൊക്കെ ആയിട്ടുള്ള ഒന്നോ രണ്ടോ വണ്ടികളൊക്കെയേ ഉണ്ടാവുകയുള്ളൂ നമ്മള് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുതിര വണ്ടികള് പിന്ന കാളവണ്ടി ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീടൊക്കെയാണ് ഇപ്പോൾ വണ്ടികളുടെ ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു വീട്ടിൽ പോലും വണ്ടിയില്ലാത്ത ഒരു വീടില്ല ഒരു സ്കൂട്ടി പോലുമില്ലാത്ത ഒരു വീടില്ല അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ നല്ല രീതിയില് നമ്മുടെ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കൈയിലും മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെയായി എന്ത് കാര്യവും വിരൽത്തുമ്പിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു കാലഘട്ടായി ഇപ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മരങ്ങളൊക്കെ മുറിച്ചിട്ട് വീടുകള് പണിയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം